ഇപ്പം വാർത്തമാധ്യമങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെയുണ്ട് അതായത് ഓരോരോ ചാനലുകളുണ്ട് ചാനലുകൾനൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ട്വൻ്റി ഫോർ ഏഷ്യാനെറ്റ് ന്യൂസ് നമ്മുടെ വയനാട്ടിനെന്നു പറഞ്ഞാൽ വയനാട് വിഷൻ മലനാട് ന്യൂസ് അങ്ങനെ അത് കുറേ വയനാട് ന്യൂസ് അങ്ങനെ കുറെ ചാനലുകളും സോഷ്യൽ മീഡിയകളുമുണ്ട് അപ്പം അതിലൊക്കെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങളോക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് കുറെ പോരായ്മകൾ ഉണ്ട് അപ്പം ചില സ്ഥലത്ത് എന്താണോ അവിടെ കേൾക്കുന്നത് അതാണ് അവരെഴുതിവിടുന്നത് അപ്പോൾ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാവാത്ത ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ അതായത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ വിടുക ഇപ്പോൾ ഇവിടെത്തന്നെ അന്ന് ഒരു ആദിവാസി സ്ത്രീ മരിച്ചുന്നൊക്കെ പറഞ്ഞിട്ട് മനോരമ ന്യൂസിലൊക്ക വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരവിടെ ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട് എന്നിട്ട് ആദിവാസി സ്ത്രീ മരിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് മനോരമ ന്യൂസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയാ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ളൊരു വാർത്തയൊക്കെ ആയിട്ടാണ് തോന്നിയത് അപ്പം അതൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു തെറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്